ഞാൻ എൻ്റെ കുട്ടികാലത്ത് അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലകളും കുന്നുകളും നിറഞ്ഞ ഒരു ചിത്രം വരച്ചു ആ ചിത്രം വരച്ചു സ്കൂളിൽ ടീച്ചറിനെ കാണിച്ചപ്പോൾ ടീച്ചറിന് വളരെ സന്തോഷമായി അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള വരകളെ കുറിച്ച് ഞാൻ മനസിലാക്കുകയും അങ്ങനെ ഞാൻ വരയ്ക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു വരച്ചു കഴിഞ്ഞു പല പല രീതിയിലുള്ള സീനറികൾ വരയ്ക്കാൻ തുടങ്ങി വെള്ളത്തിൽ താമര നിൽക്കുന്നതും മനോഹരമായ മലകളുടെ ഇടയിൽ വീട് വീടും തെങ്ങും കമുകുകളും അത് ഗ്രാമീണമായിട്ടുള്ള രീതിയിലുള്ള പല പല ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുകയും ചെയ്തു എൻ്റെ കഴിവ് കണ്ടിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരു ചിത്രകാരൻ്റെ അടുത്ത് വിട്ടു അവിടെ ഞാൻ രണ്ടു വർഷം ചിത്രം വരയ്ക്കാൻ പഠിച്ചു പെൻസിൽ ഡ്രോയിങ്ങ് ആയിരുന്നു ഞാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അതിൽ അതിലൂടെ ഞാൻ വളരേ അധികം ചിത്രങ്ങൾ വരയ്ക്കുകയും എൻ്റെ കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്തു പിന്നെ ഞാൻ അതിൽനിന്ന് മാറി വാഹനങ്ങൾ വരയ്ക്കുകയും വാഹനങ്ങൾ നിരത്തിലൂടെ പോകുന്നതും ഈ ഗുഹകളിലൂടെ കടന്നു പോകുന്നതും എല്ലാം ഞാൻ വരയ്ക്കാൻ തുടങ്ങി എൻ്റെ ഈ മനോഹരമായ ചിത്രങ്ങൾ കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വലുതായപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അതിനെ അവർ എക്സിബിഷന് വയ്ക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കോളേജ് കാലത്ത് കോളേജിലെ എക്സിബിഷൻ വന്ന സമയത്ത് ഞാൻ വരച്ച ചിത്രങ്ങൾ വയ്ക്കുകയും എനിക്ക് അതിന് ഒന്നാം സമ്മാനം യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ലോകം അറിയപ്പെടുന്ന രീതിയിൽ എൻ്റെ കൂട്ടുക്കാർ പല സ്ഥലങ്ങളിലും മീഡിയകൾ വഴി അയച്ചു അത് ഞാൻ വരച്ച ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും അത് ഓരോ ചിത്രത്തിനും ഇത്ര രൂപയെന്നുള്ള രീതിയിൽ തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷെ എൻ്റെ എന്നിലുള്ള കലാ വാസന എന്നിൽ പുറത്തെടുത്ത എൻ്റെ കുട്ടിക്കാലത്തെ അധ്യാപകർക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു